ഹലോ ഹലോ നമുക്കേ കുറച്ച് ആ കുറച്ച് വിത്ത് വേണമായിരുന്നല്ലെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വിത്താണ് ഉള്ളത് നമുക്ക് പാവലിന്റെയോ പടവലത്തിന്റെയോ ഒക്കെ കുറച്ച് പടവൽ പടവലത്തിന്റെ വിത്ത് വേണം കുറച്ച് പാവലിന്റെ വിത്ത് വേണം കുറച്ച് പയർ അരിയും ക്ലേ ഉണ്ടോ ആ നമുക്ക് ഞങ്ങള് നേരിട്ട് വന്ന് വാങ്ങിച്ചോളാം നമുക്ക് ഇച്ചിരിയും പയർ അരിയും ഇത്തിരി പാവലിന്റേയും ഇത്തിരി പടവലത്തിന്റേയും പിന്നെ വില നമുക്ക് കുഴപ്പമില്ല ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത് മ് അപ്പം അവടേയ്ക്ക് വരാനുള്ള ലോക്കേഷന് അയച്ച് തരണമെങ്കിൽ ഞങ്ങൾക്ക് അതൊരു സൗകാര്യമായിരുന്നു

അത് നമുക്ക് ഏകദേശം എന്നാൽ വില ആകുവതിന് ആ നമുക്ക് അതിന്റെ കൃഷി രീതികളേക്കുറിച്ചൊന്ന് അതെങ്ങനെയാണത് അത് എങ്ങനെയാണ് ചെയ്യുക കൃഷി ചെയ്യണ്ടതെങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞ് തരാവോ നമ്മള് ചെയ്തോണ്ടിരിക്കുന്നതല്ലേ ആ അപ്പം നമുക്ക് നമ്മളിത് സാധാരണ എത്ര ദിവസം കഴിയുമ്പം ഇത് പൊട്ടി നമ്മള് മുളച്ച് ഇതെങ്ങനാ നമ്മള് വെള്ളത്തിലിടുവാന്നോ വിത്ത് വിത്ത് കൊണ്ടുവന്ന് ഉം നമ്മളിത് എത്രാം ദിവസത്തേക്ക് മുളച്ച് പൊങ്ങും നാലോ അഞ്ചോ എങ്ങനെയാണ് അതിന്റെ കണക്ക് ആ അപ്പഴ് നമ്മളത് അതിന് ഏകദേശം എത്ര ദിവസന്തൊട്ടതയ്ന് നാമ്പും ഇലയൊക്ക് ആ അഞ്ച് ദിവസം കൊണ്ട് മുളച്ച് വരും അപ്പം അത് നമ്മള് മുളച്ച് വന്ന് നമ്മളെത്ര ദിവസം ആയിരിക്കണം പിന്നെ ആ ആ ആ ആ ഇല്ല മ് മ് മ് പിന്നെ നമ്മള് എത്രാം പക്കം ആണതിന് വളവിടണ്ടത് പിന്നേ മ് മ് മ്

പിന്നേ നമ്മള് കൂടുതൽ മ് മ് മ് നമുക്ക് അതിന് തടവിട്ടു കൊടുക്കണമല്ലേ മ്

മ് നമുക്ക് വീട് ആ ആ ആ ആ ആ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനാണ് ആ നമുക്ക് വീട്ടിലേക്കുപയോഗിക്കാന് അധികം വളവും വിഷവും ഒന്നും ചേര്ക്കാതെ എന്നാൽ നമ്മുടെ വീട്കളില് തന്നെ ഉള്ള ആ ആ അപ്പം നിങ്ങള് ലൊക്കേഷന് അയച്ച് തരിക ഞങ്ങള് വന്ന് വിത്ത് വന്ന് വാങ്ങിച്ചോളാം കേട്ടോ ഓക്കെ ശരി ആ ശരി ആ ശരി ശരി